യഥാർത്ഥ സംഭവങ്ങളെ അ അടിസ്ഥാനമാക്കിയുള്ള ഇഷ്ടപ്പെട്ട പുസ്തകങ്ങള് ഉണ്ടോ എന്നു ചോദിച്ചാല് വളരെ കുറച്ച് പുസ്തകങ്ങളേ അങ്ങനെയുള്ളത് വായിച്ചിട്ടുള്ളൂ അതില് എനിക്ക് ഇഷ്ടം തോന്നിയൊരു പുസ്തകമാണ് ആടുജീവിതം ആടുജീവിതം നോവല് റിലീസാവുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അത് ബെന്യാമിൻ എന്നയാള് എഴുതിയ ബുക്കാണത് എഴുതിയ നോവലാണ് അതിൻ്റെ പ്രവാസ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിവരിക്കുന്ന സിനിമയിൽ ആയതുകൊണ്ടും യ്യോ കഥയായതുകൊണ്ടും അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതില് അതിൻ്റെ കഥ ശരിക്കും പറഞ്ഞാല് ആലപ്പുഴക്കാരനായ നജീബെന്നു പറയുന്നൊരാള് ഏജൻറ്റ് മുഖേന സൗദി റിയാദിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുകയും അങ്ങനെ അയാളെ ഏജൻറ്റ് മുഖേന അങ്ങനെ സൗദിയിലെത്തപ്പെടുകയും എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഏജൻറ്റ് വരുന്നില്ല അയാളെ പിക്കെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ നേരം നിന്ന് അയാളുടെ കൂടെ ഒരാളൂടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോള് കുറേ സമയം നിന്ന് കഴിയുമ്പോഴാണൊരു ഒരു ഒരു അറബി വരുകയും അയാള് ഇവരെ വിളിച്ചുകൊണ്ടുപോവുകയുമാണ് ഏജൻറ്റ് ആ ആണെന്നുള്ള ഇതിലായിരിക്കാം ഇവര് കൂടെ പോവുന്നു അങ്ങനെ അയാളുടെ കൂടെ പോയി ഇവര് എത്തപ്പെടുന്നത് ഒരു മരുഭൂമിയിലൊരു ആടുകളുടെയൊരു ഫാമിലാണെന്നാണ് അപ്പോള് അവിടെ ചെന്നുകഴിഞ്ഞാണ് ഇവർക്ക് പറ്റിയ ഇത് അവർക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നത് അവിടെ ഫാമിൽ ചെന്നൊരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നവർക്ക് അ നജീബെന്ന് പറയുന്ന ആളുടെ കാല് തല്ലി ഒടിക്കുകയും അങ്ങനെ ഒരുപാട് ദുരിതങ്ങള് പിന്നെ ആഹാരമാണെങ്കിലും ആകെ കഴിക്കാന് കിട്ടിയിരുന്നെന്ന് പറഞ്ഞാല് വല്ലപ്പോഴും ഈ കുബൂസും വെള്ളവും അങ്ങനെന്തെങ്കിലും ഒക്കെ ആകെ കിട്ടിയിരുന്നുള്ളൂ ഈ കൂ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നൊരാള് ഹക്കിം എന്നു പറഞ്ഞൊരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നാള് ഏകദേശം ഒരു മൂന്നാല് വർഷം അവിടെ ആ കഷ്ടപ്പാട് സഹിച്ചവർക്കവിടെ നില്ക്കേണ്ടിവന്നു അത് കഴിഞ്ഞ് എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെടാനൊരവസരം കിട്ടുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ അവിടുന്ന് രക്ഷപ്പെടാൻ ഇറങ്ങുന്നു അതിന്റെടക്കീ ഹക്കീമിനെന്നു പറയുന്ന ഹക്കീമിനെന്തോ സംഭവിച്ച് അയാള് മരിച്ചുപോവുന്നതായിട്ടാണ് പിന്നെയീ നജീബെന്ന് പറയുന്നാളവിടുന്നോടി ഓടി എങ്ങനെയോ ഒരു ജനവാസ മേഖലയിലെത്തും എത്തുന്നു അവിടുന്ന് പോലീസിൻ്റെ പിടിയിലാവുകയും കുറേ നാള് ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടിയും വന്നു വരുന്നുണ്ട് അവിടുന്ന് പിന്നെ കുറേ നാളുകള്ക്ക് ശേഷമാ ജയിൽവാസമൊക്കെ കുറേ നാളനുഭവിച്ചതിനു ശേഷമാണ് പോലീസ് മുഖാന്തരം അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടില് എത്താന് പറ്റുന്നതും ഒക്കെ അത് ശ ശരിക്കും പറഞ്ഞാല് പ്രവാസി പ്രവാസ ലോകത്തെല്ലാവരും ഒരേപോലെ ഉള്ള ജീവിതമല്ല നയിക്കുന്നത് പലരും ഇതുപോലുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് പോവുന്നതെന്നു നമുക്ക് മനസ്സിലാക്കിത്തരുന്നൊരു കഥയാണ് ഈ അത് ഈ ആടുജീവിതം ഇപ്പോള് സിനിമയായിട്ടും ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് സിനിമയും റിലീസായിട്ടുണ്ട് അത് കാണണമെന്നാഗ്രഹം തോന്നിയൊരു സിനിമയാണത് കാണാന് പറ്റിയിട്ടില്ല അത് കാണണമെന്നാഗ്രഹം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് പ്രവാസികളെ അടുത്തറിയാവുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന ഒരു കഥയാണ് ആടുജീവിതം അതുകൊണ്ടാണ് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളില് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു നോവലാണ് ആടുജീവിതം